ആ ഹലോ ഇത് ബേക്കറി അല്ലേ ആഹ് നമുക്ക് ഒരു കേക്ക് വേണമായിരുന്നു അതിന് ഓർഡർ ചെയ്യാനായിട്ട് വിളിക്കുവായിരുന്നു ഒരു അടുത്ത ബുധനാഴ്ച കിട്ടുന്നതു പോലെ ഓക്കെ ഒരു അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം അതായത് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് രണ്ട് കേക്ക് വേണം അപ്പോൾ അതിന് എന്തൊക്കെ ടൈപ്പ് കസ്റ്റമൈസേഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഡിസൈൻസ് ഒന്ന് പറയാമോ ഓക്കെ ഓക്കെ നമുക്ക് സ്ട്രോബെറി ഫ്ലേവറിൽ ആയിരുന്നു വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ അതായത് അവരുടെ ഇമേജ് ആഡ് ചെയ്താൽ മതി ഞാൻ വാട്സാപ്പ് ചെയ്യാം ആ ഓക്കെ പിന്നെ ട്വൻ്റി ഫിഫ്ത് വെഡിങ് ആനിവേഴ്സറിയാണ് ഇരുപത്തി അഞ്ചാമത്തെ അപ്പം ആ ഒരു ഫോണ്ടും കാര്യങ്ങളും ഓക്കെ പിന്നെ എത്ര വരെയാണ് ഡെലിവറി ചാർജങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഹോം ഡെലിവറിയായിരുന്നു ഉദ്ദേശിച്ചത് ഹലോ ഹോം ഹോം ഡെലിവറിയായിരുന്നു ഉദ്ദേശിച്ചത് പിന്നെ എത്രയാവും ഒരു ടു കെ ജിയുടെ കേക്കാണെങ്കിൽ എത്രയാവും രണ്ട് കിലോ ഓക്കെ ഓക്കെ ഓക്കെ സ്ക്വയർ ഷേയ്പ്പിൽ കിട്ടില്ലേ സ്ക്വയർ ഷേയ്പ്പിലായിരുന്നു നമുക്ക് വേണ്ടത് ഓക്കെ ആഹ് പിന്നെ അതിനകത്ത് അഡീഷണലായിട്ട് ടു ലെയറായിട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോ അല്ല മോഡിഫൈ ലെയറിൽ ചോക്ലേറ്റ് അങ്ങനെ മതി ആ ചോക്ലേറ്റ് ബേസ് ഓക്കെ ചോക്ലേറ്റ് ബേസായിട്ട് വെച്ചാൽ മതി

ആ സ്ട്രോബറിയുടെ തന്നെ ആഡ് ചെയ്താൽ മതി ഓക്കെ ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ചാ അമ്മ ആഹ് അതും കൂടെ ഞാൻ വാട്സപ്പിലിട്ടേക്കാം ഓക്കെ ഓക്കെ നമുക്ക് ഒരു രണ്ട് കിലോമീറ്ററ് രണ്ട് കിലോമീറ്ററ് മാറിയായിരുന്നു ഡെലിവറി ചെയ്യേണ്ടത് അപ്പോം ഡെലിവറി ചാർജ് എത്രയാകും ആ ഓക്കെ ലൊക്കേഷൻ ഞാൻ വാട്സിപ്പ് ചെയ്തേക്കാം ആഹ് ഓക്കെ അപ്പം ബുധനാഴ്ചത്തേക്കായിരുന്നു ഈ വരുന്ന ബുധനാഴ്ചത്തേക്കായിരുന്നു വേണ്ടത് വൈകുന്നേരം ആകുമ്പോഴ്ത്തേക്കും എത്തിയാൽ മതി വൈകുന്നേരം ഞങ്ങൾ അത് അറേഞ്ച് ചെയ്തേക്കുന്നത് സെലിബ്രേഷൻ അറേഞ്ച് ചെയ്തേക്കുന്നത് ആ ഓക്കെ ഓക്കെ